അടുത്തിടെ ഞാൻ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീടുകളിൽ തറ തുടക്കാൻ ഉപയോഗിക്കുന്നൊരു മോപ്പായിരുന്നു ഞാൻ ഓഡർ ചെയ്തത് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ എൻ്റെ പപ്പ വന്നിട്ട് ഒരു മോപ്പ് വാങ്ങിക്കുകയുണ്ടായി ഓഫ്ലൈൻ ആയിട്ടു ഞാൻ ഓഡർ ചെയ്തത് ഓൺലൈൻ ആയിരുന്നു നല്ല മോപ്പായിരുന്നു അതു നമുക്ക് ഈസി ആയിട്ടു വെള്ളം സ്പ്രേ ചെയ്തു കൊണ്ട് തുടക്കാൻ പറ്റുമായിരുന്നു അതിൻ്റെ ഉപയോഗം എന്നു പറഞ്ഞാൽ നമുക്ക് ഇടക്ക് ഇടക്ക് വെള്ളം പോയി എടുക്കേണ്ട ആവശ്യം ഇല്ല അതിൻ്റെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തായതു കൊണ്ടു തന്നെ വളരെ വേഗത്തിൽ നന്നായിട്ടു തുടക്കാൻ പറ്റും അഴുക്കൊക്കെ പെട്ടെന്നു മാറും അതിൽ തുടക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓഡർ ചെയ്തത് ഒരു ഓഫറിനായിരുന്നു കിട്ടിയത് അറുന്നൂറ് രൂപക്ക് ഓഡർ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വൈറ്റും ഉണ്ടായിരുന്നു അതു സ്റ്റാൻഡാർഡായിരുന്നു ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിട്ടായിരുന്നു ഓഡർ ചെയ്തത് പക്ഷെ അപ്പോഴാണ് എൻ്റെ പപ്പ അതിനെക്കാളും നല്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോപ്പ് വീട്ടിലേക്കു വാങ്ങിക്കൊണ്ട് അതു വന്നു അപ്പോൾ അതു ഞാൻ ഉപയോഗിച്ചു നോക്കി അതു വളരെ നല്ലതായിരുന്നു നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓഡർ ചെയ്ത ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഷിപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ അത് അടുത്ത ചൊവ്വാഴ്ചയാണ് ഓഡർ വരുമെന്നു പറഞ്ഞത് ഷിപ്പ് ചെയ്തിട്ട് ഡെലിവറി ആകുമെന്നു പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിനു മുന്നെ കേൻസൽ ചെയ്യേണ്ടത് ഉണ്ട് ക്യേൻസൽ ചെയ്ത മാത്രമേ എനിക്ക് പേയ്മെൻറ് കിട്ടത്തുള്ളൂ കാരണം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി അല്ല എടുത്തത് ഞാൻ ഓഡർ ചെയ്ത സമയം തന്നെ ജി പെയിൽ ക്യാഷ് അയച്ചു കൊടുത്ത് അപ്പോൾ എനിക്ക് ക്യാൻസൽ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ആകത്തുള്ളൂ സൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ആമസോൺ വെബ്സൈറ്റിൽ കയറി എൻ്റെ അക്കൗണ്ട് എടുത്ത് എൻ്റെ പ്രൊഫൈലിൽ അപ്പോൾ അപ്പോൾ മൈ കാർട്ടിൽ എൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് അതിൽ തന്ന മൈ ഓഡർസിലായിരുന്നു പ്രോഡക്റ്റ് ഉള്ളത് അതിൽ കയറിയിട്ടു ഞാൻ ക്യാൻസൽ കൊടുത്തു ഞാൻ റദ്ദാക്കി പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതു റദ്ദ് ആയോ എന്നുള്ളത് അപ്പോൾ ഞാൻ ആമസോൺ കസ്റ്റമർ കെയർ വിളിച്ചു അപ്പോൾ അത് ഓൾ ഇന്ത്യ സർവീസ് ആയതു കൊണ്ടായിരിക്കണം അവർ കോഡ് തന്നു എ ഏതെല്ലാം ചോദിച്ചിട്ടു കോഡ് തന്നു അതു രണ്ടിലമർത്തുക മൂന്നിലമർത്തുക അങ്ങനെ പറയുന്ന വഴിയായിട്ട് ഒരു കോഡ് തന്ന് അപ്പോൾ ആ കോഡ് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ഡെലിവറി ഏജൻറ്റിനെ കിട്ടി അപ്പോൾ അവിടെ നിന്ന് അവർ എൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചതിനു ശേഷം ആ ഒരു അവർ പറഞ്ഞു ക്യാൻസൽ ആയിട്ടുണ്ട് ഇനി ഡെലിവറി ആകത്തില്ലയെന്നു പറഞ്ഞു നല്ല വളരെയധികം നല്ലൊരു കസ്റ്റമർ കെയർ സർവീസായിരുന്നു എനിക്ക് കിട്ടിയത് അവർ വളരെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങൾ ചോദിച്ചറിയുകയും വളരെ വ്യക്തമായിട്ട് ആ ഒരു അവരുടെ സിസ്റ്റത്തിൽ എൻ്റെ ആ പ്രൊഫൈൽ നോക്കുകയും ക്യാൻസൽ ആയിട്ടുണ്ടോയെന്നു നോക്കയും ചെയ്തു വളരെ ഭംഗിയായിട്ടു തന്നെ അവരാ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു